അത് ഈ പി എഫിൻ്റെ സൈറ്റിൽ കയറി ഈ പി ഐ ഐ ഡി ലോഗിൻ കോളത്തിൽ ടൈപ്പ് ചെയ്യുക അതിന് ശേഷം പാസ്സ്വേർഡ് ടൈപ്പ് ചെയ്യുക പിന്നെ ലോഗിൻ നമ്മുടെ ഐ ഡിയിൽ പോകും അപ്പോൾ നമ്മുടെ ആവശ്യമനുസരിച്ച് ചെക്ക് ചെയ്യുക പിന്നെ അതിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേഷൻ ചെയ്ത് പിന്നെ ചെയ്തതായി കാണാം അത്രയും ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എന്തെങ്കിലും സംശയവൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കോൾ ചെയ്യാനായിട്ട് നമ്പറുണ്ട് അപ്പം ആ രീതീലക്കെ ചെയ്ത കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ വിവരങ്ങളക്കെ അറിയാനായിട്ട് സാധിക്കും